കോഴി വളർത്തൽ രോഗം പടരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം സ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കാര്യം കോഴികൾക്ക് ഇച്ചിരി കൂടുതൽ തണുപ്പ് ഏറിയാലൊക്കെ അതുങ്ങൾക്ക് പെട്ടന്ന് അസുഖങ്ങൾ ബാധിക്കാറുണ്ട് ഇപ്പം ആ അസുഖങ്ങൾ ബാധിച്ച കോഴികളെ നമ്മൾ അസുഖം ഇല്ലാത്ത കോഴികളുമായിട്ട് അടുപ്പിക്കാതെ അവരെ മാറ്റി വേറെ സ്ഥലത്തേക്ക് ആക്കേണ്ടതാണ് അതുപോലെ കോഴിക്കുഞ്ഞുങ്ങളെ ആണെങ്കിലും നമ്മൾ വലിയ കോഴികളുമായിട്ടും ഉൾപ്പെടുത്താതെ അവരെ പനി ഇല്ലാത്തവർ ചിലർക്ക് ചില കോഴികൾക്ക് ഇപ്പം ചെറിയ മഴ വന്ന് കഴിയുമ്പം ചിലർക്ക് ചില കോഴികൾക്ക് പണിയുണ്ടാകാറുണ്ട് അപ്പം നമ്മൾ പാരസെറ്റാമോളോ വല്ലതും പൊടിച്ച് കൊടുത്ത് അതുപോലെത്തന്നെ ഈ മഞ്ഞൾ വെള്ളം കലക്കിയൊക്കെ കൊടുക്കാറുണ്ട് കോഴികൾക്ക് അപ്പം കോഴിയുടെ വയറ്റിൽനിന്ന് ഒക്കെ പോവുന്നത് നിൽക്കാറുണ്ട് അങ്ങനെ ചെയ്ത് കഴിയുമ്പം പനിയും മാറും പിന്നെ തീരെ വയ്യ എന്നുണ്ടെങ്കിൽ നമ്മൾ മൃഗാശുപത്രി ചെല്ലുമ്പം അവർ വന്ന് ഇൻജഷൻ എടുക്കാറുണ്ടല്ലോ കോഴികൾക്ക് മൊത്തമായിട്ട് വരുമ്പം അപ്പം അങ്ങനെ വന്ന് അവർ ഇൻജഷൻ എടുക്കാറുണ്ട് അത് നമ്മൾ കോഴികൾക്ക് ഒരുപാട് കോഴിഫാമൊക്കെ നടത്തുന്നവരാണെങ്കിൽ ആ കോഴി കൾക്ക് വന്നുകഴിഞ്ഞെന്നാൽ എല്ലാത്തിനും വരാൻ എളുപ്പമാണ് അതുകൊണ്ട് നമ്മളത് അങ്ങനെ വരുമ്പഴത്തേന് നമ്മൾ വീട്ട് ചികിത്സ ചെയ്യാതെ ബന്ധപ്പെട്ട മൃഗാശുപത്രിയിൽ നമ്മൾ പറയുമ്പം അവർ വന്ന് ആ ഇൻജഷൻ ചെയ്ത് എൻ്റെ മാറ്റാറുണ്ട് പിന്നെ ചത്തു പോവുന്ന കോഴികളെ നമ്മൾ കുഴിച്ചുമൂടണം അത് ആ കോഴിക്കൂട്ടിൽത്തന്നെ ഇടരുത് മറ്റുള്ള കോഴിൾക്ക് കൂടി പകരാൻ ഇടയുണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ കോഴിയും ചത്തകോഴികളെ നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ കോഴിക്കൂട്ടിൽ നമ്മൾ ആഴ്ചയിലൊക്കെ ഒന്ന് വൃത്തിയാക്കണം ചകിരിച്ചോറോ അല്ലെങ്കിൽ അറക്കപ്പൊടി കിട്ടും അപ്പം ആ മേളിൽത്തെ മണ്ണ് നമ്മൾ വൃത്തിയാക്കി മാറ്റിയിട്ട് പുതിയതിട്ട് പിന്നെ അത് വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വല്ല വേസ്റ്റ് പാത്രങ്ങളോ അഴുക്ക് ഭക്ഷണങ്ങൾ വലിച്ചെറിയാൻ ഇടവരരുത് കോഴിക്ക് കൊടുക്കുന്ന പാത്രങ്ങൾ വൃത്തിയായിട്ട് സൂഷിക്കാൻ നോക്കണം